ഡോക്ടർ ആണോ ഹലോ ഡോക്ടർ ആണോ ആ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പനിയും അതായത് രാത്രി മാത്രം ഭയങ്കര പനിയും ജലദോഷവും മൂക്കടപ്പ് ഒക്കെയാണ് പിന്നെ ഒരു തൊണ്ടവേദന അതായത് വെള്ളം ഇറക്കുമ്പം ഒക്കെ ഭയങ്കര കടച്ചിൽ പോലെ വേദന എടുക്കുന്നുണ്ട് മഴ ഒന്നും നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല മ് പിന്നെ തണുത്തതായിട്ട് ഒരു ലൈം കുടിച്ചായിരുന്നു രാത്രി ആവുമ്പം ഭയങ്കര പനിയും ആണ് ഞാനതുകൊണ്ട് പാരസെറ്റാമോൾ കഴിച്ചായിരുന്നു ഇന്ന് രാവിലെയും കഴിച്ചായിരുന്നു ഉച്ചയ്ക്കും അത് കഴിക്കുമ്പം മാത്രം എല്ലാ വേദനയും പോവും പക്ഷേ അതിൻ്റെ ഒരു ഇത് പോവുമ്പം അത് കഴിയുമ്പം ഭയങ്കര തൊണ്ടവേദന ആയിട്ടാണ് തുടങ്ങുക പിന്നെ ഭയങ്കര ചുമയും പിന്നെ പനിക്കാൻ തുടങ്ങും മ് ആ കഫ കഫക്കെട്ട് ഉണ്ട് പിന്നെ അതുപോല മൂക്കടപ്പ് ഭയങ്കരം സൗണ്ട് ഒക്കെ മാറി ഇരിക്കാണ്

ആ ആ മ് എങ്ങനെ വെറും ആ സാധാരണ ചൂട് വെള്ളത്തിലോ അതായത് അല്ലെങ്കിൽ വിക്സോ എന്തെങ്കിലും ഇടണോ ആ അങ്ങനെ ആവി പിടിച്ചാൽ മതി അല്ലേ

മ് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഒന്ന് ആവി പിടിച്ച് നോക്കട്ടെ എന്നിട്ട് കുറവ് ഇല്ലെങ്കിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണോ ഡോക്ടറേ വരേണ്ടത് ആണോ ആ അങ്ങന ആണെങ്കിൽ ഞാൻ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ടും ആയിട്ട് വരണം അല്ലേ കുറവില്ലെങ്കിൽ ഡോക്ടർ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഉണ്ടാകും എങ്ങനെ ഈവനിംഗാണോ ഉണ്ടാവുക അല്ലെങ്കിൽ ഉച്ച വരെയോ ആ ഓക്കെ ഡോക്ടർ എന്നാൽ ഞാൻ അങ്ങന വരാം ഓക്കെ